നമുക്ക് ഇൻവർട്ടറുകൾ ഉണ്ട് പക്ഷേ അതേപോലെതന്നെ എമർജൻസികൾ ഉണ്ട് പിന്നെ ബൾബുകൾ ഒക്കെ വീട്ടിലുള്ള ബൾബുകൾ ഹാളിൽ ഉള്ള ബൾബ് ഒക്കെ നമുക്ക് ഒരു രണ്ടുമൂന്ന് അതായത് കരണ്ട് പോയിട്ടും മിനിമം ഒരു രണ്ടുമണിക്കൂർ ലൈറ്റ് കത്തുന്ന കൂട്ട് എൽ ഇ ഡി ബൾബുകളാണ് വീട്ടിലെ ഇതാക്കിയേക്കണത് അപ്പം നമുക്ക് എന്താ പറയുക മിക്സി മിക്സി ഒന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഇംപോർട്ടന്റ് മിക്സി വാഷിംഗ് മെഷീൻ അതൊക്കെയാണല്ലോ നമുക്ക് കൂടുതലും നമ്മൾ ഇതാക്കുക ഫോണില് ചാർജ് കുത്താൻ ഇൻവെർട്ടറിലും നമുക്ക് കുത്താൻ പറ്റും പിന്നെ അതായത് ഇൻവെർട്ടറും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആണ് മിക്സിയും വാഷിങ്മെഷീനും പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇൻവെർട്ടറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖായിട്ട് എല്ലാം നമ്മുടെ വീട്ടില് എങ്ങനെയാണോ നമ്മള് ഒരു ദിവസം കറണ്ട് ഉള്ളപ്പം ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റും ഇൻവർട്ടറും പ്രവർത്തിക്കുന്നില്ല ഏതെങ്കിലും രീതിയിൽ കംപ്ലീറ്റ് ആണെന്ന് വിചാരിച്ചോ അല്ലെങ്കില് ഇൻവെർട്ടർ ഇല്ലെങ്കില് ഞങ്ങള് പണ്ടത്തെ ആ മണ്ണെണ്ണ വിളക്ക് ഉണ്ടിവിടെ അത് പിന്നെ അത് റാന്തൽ ഉണ്ട് പഴയത് തറ പഴയ തറവാടാണ് ഇവിടെ റാന്തലും മണ്ണെണ്ണ വിളക്കും ഇപ്പഴും നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ മെഴുകുതിരി വെക്കും ഇനി ഇപ്പോൾ എൽ ഇ ഡി ബൾബുകൾ ആയതുകൊണ്ട് ഒന്നരമണിക്കൂർ രണ്ടുമണിക്കൂർ നിൽക്കുന്നതുകൊണ്ടും എമർജൻസി ഉള്ളതുകൊണ്ടും മണ്ണെണ്ണ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നില്ലാത്തത് കൊണ്ടും ഒക്കെ എമർജൻസി ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മള് കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നത് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല അതൊരു രീതിയിലും നമ്മുടെ ബാധിക്കില്ല ഇൻവർട്ടർ വീട്ടിലുണ്ട് അത് പ്രവർത്തിക്കുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമുക്ക് ഒരു രീതിയിലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ മാത്രമാണ് എമർജൻസി ബൾബ് അങ്ങനത്തെ ബൾബ് ആകുമ്പോൾ നമുക്ക് കുറച്ചുനേരം കൂടുതൽ നിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുട്ടത്ത് ഇരിക്കുകയോ കറണ്ടില്ല മെഴുകുതിരി തപ്പി പോവുക ഒന്നും വേണ്ട